എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്നു പറയുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് കുടുംബം കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തും ഉള്ളൂ നമ്മൾ നമ്മുടെ കൂടെ വേറെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നു പറഞ്ഞാലും നമുക്ക് ഏറ്റവും ശക്തി തരുന്നത് എപ്പോഴും നമ്മുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് അപ്പോൾ എന്തു കാര്യത്തിനാണെങ്കിലും ചെറിയ ചെറിയ കാര്യം സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് അവരുടെ അടുത്തുപോയി പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അവരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പോലും നമുക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് അതെനിക്ക് കിട്ടുന്നത് കുടുംബത്തിൽ നിന്നു തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് എവിടെപ്പോയി പറഞ്ഞാലും എവിടെയാണെങ്കിലും നമുക്ക് കുടുംബത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട് എവിടെപ്പോയാലും അന്വേഷിക്കാനാണെങ്കിലും പറയാനാണെങ്കിലും എല്ലാത്തിനും ആരാണ് നമ്മുടെ കുടുംബം തന്നെയാണ് നമുക്കെപ്പോഴും നമ്മുടെ എന്താണ് കൂടെ ഉണ്ടാവുകയെന്നു പറയുന്നത് അവരുടെ അടുത്ത് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അവർ അവരുടെ അടുത്ത് എന്തു വേണമെങ്കിലും പറയാം അപ്പോൾ എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാവിടേയും കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്തുതരുന്നതും നമ്മുടെ കുടുംബം തന്നെയാണ് കുടുംബത്തിലുള്ളവരു തന്നെയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്നുപറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാവരെയും പെട്ടന്നങ്ങോട്ട് വിശ്വസിച്ചു പോകും അതാണെന്റെ ഏറ്റവും വലിയ ബലഹീനത പറയുന്നത് എന്തിനെയെന്നൊന്നും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ ശരിയെന്നു പറഞ്ഞങ്ങോട്ട് സമ്മതിക്കും അതുകണ്ടു വിശ്വസിക്കും പൊട്ടീനെപ്പോലെ എന്നിട്ട് അവരെന്താണ് പറയണത് അതേറ്റുപറഞ്ഞോണ്ടിരിക്കും അതുതന്നെ എപ്പോഴും അബദ്ധത്തിൽ കൊണ്ടെത്തിച്ചിട്ടേ ഉള്ളു അപ്പോൾ അതു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമെന്നു പറയുന്നത് ബലഹീനയെന്നു പറയുന്നത് ഞാനങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ടായെന്നു വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിച്ചിട്ട് അതിൽ കൊണ്ടെന്തുചെയ്യും എന്നെക്കൊണ്ട് എത്തിക്കും ഇതാണ് സാധാരണ ഉണ്ടാവുന്നത് ഇതാണ് എൻ്റെ ബലഹീനതയെന്നു പറയുക